ഹലോ ആശേ നീ തിരക്കാണോ എടീ എനിക്കൊരു ഡൗട്ട് ആ എനിക്കിപ്പം ദാണ്ടെ ഒരു എസ് എം എസ് വന്നു എൻ്റെ ആധാർ അപ്ഡേറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് അപ്പം ഒരു എസ് എം എസ് വന്നേ അപ്പോഴത് കറക്റ്റാണോ ഇതൊന്നു പറഞ്ഞു തരണേ അപ്പോൾ നമ്മളുടെ എസ് എം എസ് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്യണ്ടേ എല്ലാ വർഷാവർഷം കുഴപ്പമൊന്നും ഇല്ലല്ലോ ഇല്ലേ ഇല്ല കുഴപ്പമൊന്നും ഇല്ല നമ്മളെല്ലാ കാര്യവും വർഷാവർഷം അപ്ഡേറ്റ് ചെയ്യണം അല്ലെങ്കിൽ ഇത്ര മാസം കൂടുമ്പോൾ നമ്മളത് അപ്ഡേറ്റ് ചെയ്തേ പറ്റത്തുള്ളു അതിനകത്തെ പ്രശ്നമൊന്നും ഇല്ലല്ലോ ഇല്ലേ ആ കുഴപ്പമൊന്നും ഇല്ല എല്ലാ കാര്യവും നമുക്ക് കറക്റ്റല്ലെ നമുക്കാധാറിനകത്ത് തെറ്റ് ഒന്നും ഇല്ലല്ലോ കറക്റ്റായിരുന്നല്ലലോ നമ്പറെല്ലാം കറക്റ്റല്ലെ ആ നമ്പറെല്ലാം കറക്റ്റാണ് കുഴപ്പമൊന്നും ഇല്ല

ഇനിയതെന്നു എല്ലാം നമുക്ക് അപ്ഡേറ്റായിട്ട് ഉടനെ തന്നെ കിട്ടത്തില്ലായോ ഓപ്ഷനൊക്കെ കറക്റ്റാണ് എങ്കിൽ പിന്നെ പ്രശ്നമൊന്നും വരത്തില്ല നമുക്ക് ഇന്നത്തെ കാലത്ത് എല്ലാറ്റിനും ആധാർ അത്യാവശ്യമല്ലയോ അപ്പോൾ നീ ചെയ്തായിരുന്നോ ആ ഞാൻ ചെയ്തു കുഴപ്പമൊന്നും ഇല്ല അപ്ഡേറ്റ് ചെയ്തായിരുന്നു പ്രശ്നമൊന്നും ഇല്ല പെട്ടെന്ന് കിട്ടും കേട്ടോ ഓക്കെ